നിലവില് ലോകത്തില് ഏറ്റവും വേഗത്തില് വളർന്നുകൊണ്ടിരിക്കുന്ന ഒര് സമ്പത്ത് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയാണ് ഏറ്റവും സമ്പത്ത് വ്യവസ്ഥയില് ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഒര് കാലത്ത് ഇന്ത്യയുടെ പ്രധാന വരുമാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു കൃഷികളിലൂടെയാണ് ഒര് കാലത്ത് ഇന്ത്യ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോയാണ് എന്ത് ജോലി ചെയ്യുന്നതും എല്ലാം അതുകൊണ്ട്തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ആളുകള് ജോലി ചെയ്യുന്നത് കൊണ്ട്തന്നെ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ വളരാൻ ഇത് കാരണമാകുന്നുണ്ട് അത് കൂടാതെ തന്നെ പല സ്ത്രീകളും അമ്മമാരും ചെറുപ്പക്കാരുമെല്ലാം ഓഫ്ലൈനിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനൂടെയോ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകള് തുടങ്ങുന്നുണ്ട് ഇത്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ സമ്പത്ത് വ്യവസ്ഥ വളരെ പെട്ടന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ കൂടുതലാളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റാണ് കാരണം ഓൺലൈനായിട്ടാണ് ഇപ്പോൾ എല്ലാ പേയ്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അത്കൊണ്ട് ആളുക്കൾക്ക് കൂടുതല് ഈസിയും ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്തുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ആളുകള് ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റായിരിക്കും പ്രിഫറെയ്യുന്നത് അതുപോലെതന്നെ നോട്ടുകളെല്ലാം നിരോധിച്ചിരിക്കുന്നത് കാരണം തന്നെ നമ്മുടെ കള്ളപ്പണവും മറ്റെ അഴിമതിയെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു